ഇരുപത്തി രണ്ട് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നാല് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഇരുപത്തി അഞ്ച് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുപ്പത്തി ഏഴ് രണ്ടായിരം പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനൊന്ന്